ഹലോ അൽബൈക്ക് റെസ്റ്റോറൻടല്ലേ ഞാന് പുൽപ്പറ്റയിൽ നിന്നാണ് മൊഹമ്മദാണ് ഞാന് രാവിലെ ഒര് കിലോ ഹൈദരാബാദി ബിരിയാണി അതുപോലെ ഒരു കിലോ ഫ്രൈഡ്റൈസ്സ് അതിലേക്ക് കോഴി പൊരിച്ചത് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു അത് അതിൻ്റെ കൂടെ എനിക്ക് കുറച്ചും കൂടി സാധങ്ങൾ ജ്യൂസ് ജ്യൂസ് സാധനങ്ങൾ അവിശ്യമുണ്ട് ഇന്നൊര് ബദാം ജ്യൂസ്സ് അതേപോലെ ആപ്പിൾ ജ്യൂസ്സ് ഒര് പത്ത് എണ്ണം വീതം അതിൻ്റെ കൂടെ അയയ്ക്കുമ്പോൾ അതും കൂടി അയച്ച് തരണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരര മണിക്കൂറിന്റെ ഉള്ളിൽ എത്തുമെന്ന് പ്രതീഷിക്കുന്നു